ചേട്ടാ ഞാൻ നിങ്ങളുടെ ടാക്സി വിളിച്ചിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കറക്റ്റ് സമയത്ത് എത്താമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങള് ടാക്സി അയച്ചത് എത്തി കറക്റ്റ് സമയത്ത് എത്തിയില്ല പോരാത്തതിന് ട്രെയിനും മിസ്സായി എട്ട് മണിക്ക് എത്തേണ്ടതായിരുന്നു റെയിൽവേ സ്റ്റേഷനില് എന്നെ അവിടെ എത്തിച്ചത് എട്ടര ആകുമ്പോഴാ അപ്പോഴേക്കും ട്രെയിൻ പോകുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചെന്നൈക്ക് എത്തേണ്ടതായിരുന്നു അവിടെയാണ് വർക്ക് ചെയ്യണത് അപ്പോൾ ചെന്നൈയിൽ എത്താൻ പോലും പറ്റിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നത്തെ മീറ്റിങ്ങിന് പോവാനായിരുന്നു അത് മിസ്സായി ഇനി ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ നിങ്ങളുടെ അശ്രദ്ധ പൂർവ്വമാണ് എനിക്ക് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റാണ്ടായത് എനിക്കൊന്നൂല്ലെങ്കിൽ നിങ്ങളാ പൈസ റീഫണ്ട് ചെയ്ത് തരണം ഞാൻ നേരത്തെ അയച്ചതാണ് നിങ്ങള് കറക്റ്റ് സമയത്ത് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ എൻ്റെ കയ്യിൽനിന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ടാക്സി വിളിച്ചത് അപ്പോൾ നിങ്ങളത് എത്തിച്ചേരാത്തത് കൊണ്ട് എനിക്ക് ഒന്നൂല്ലെങ്കിൽ ആ പണം റീഫണ്ട് ചെയ്ത് തരേണ്ടി വരും